പിക്നിക്ക് പോകുവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ കുറേ സ്ഥലങ്ങളുണ്ട് അതിലുള്ളൊരു എക്സാമ്പിളാണ് കോഴിക്കോടുള്ള മാനാഞ്ചിറ സ്ക്വയർ അവിടെ നമുക്ക് ഭയങ്കര ശുദ്ധവായുവും നല്ലൊരു കാഴ്ചയും സമയവും സ്പെൻ്റ് ചെയ്യാനൊക്ക പറ്റും അത് അടുത്തുള്ള അത് ഈ ടൗണിനൊക്കെ അടുത്തായതുകൊണ്ട് നമുക്ക് അവിടെ എന്തെങ്കിലൊരു എമർജൻസി കേസ് ഒക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്കും അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോകേണ്ട എന്തെങ്കിലുമൊക്കെ വന്നാൽ അപ്പോൾ ടൗൺ അടുത്താണ് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇതൊക്കെ കൊണ്ടാണ് ഈ സ്ഥലം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് എല്ലാ ജില്ലകളിലുള്ള ഗാർഡൻസും കാര്യങ്ങളൊക്കെ എന്തായാലും ടൗണിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും അതേപോലെതന്നെ നല്ല മനോഹരമായ കാഴ്ചകളും മനോഹരമായിട്ടുള്ള ആക്ടിവിറ്റീസും അവിടെ ഉണ്ടാവും അതിലുള്ള കോഴിക്കോടുള്ള ഒരു ആക്ടിവിറ്റി ആണ് നമുക്കവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം പാർക്കിലാണെങ്കിലും ബെഞ്ചിൽ ഇരുന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാം നമുക്ക് പുതിയ ആളുകളെ പരിചയപ്പെടാം അങ്ങനെയൊക്കെ വച്ച് നമുക്ക് സ്പെൻ്റ് ടൈം സ്പെൻ്റ് ചെയ്യാൻ പറ്റും അതേ പോലെതന്നെയാണ് കോഴിക്കോട് ബീച്ചും കോഴിക്കോട് ബീച്ചിൽ നമുക്ക് പിക്നിക്ക് പോവാം അവിടെ ഇരുന്ന് നമ്മുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് ടൈം നല്ലൊരു സമയം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ സ്പെൻ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ അതുപോലെതന്നെ ഞാൻ ചില സ്ഥലങ്ങളിൽ നമുക്കങ്ങനത്തെ ചില ആക്ടിവിറ്റീസ് കാണും ബോട്ട് റൈഡ് ഹോഴ്സ് റൈഡിങ്ങ് അങ്ങനെ അതൊക്കെ അവിടുത്തെ സമയം സ്പെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളെ നല്ലൊരു മാർഗ്ഗമാണ്